ആദ്യമായിട്ട് നൃത്തത്തിലേക്ക് എങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലാം ക്ലാസ് പഠിക്കുമ്പം ഒരു ടീച്ചറ് ഉണ്ട് ഒരു സബിതാ പുള്ളിക്കാരി നമ്മളെ സ്കൂളിലെ ആനുവൽ ഡേക്ക് നമ്മൾ ആക്ഷൻ സോങ്ന് വേണ്ടിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത രീതിയിൽ എന്നെ സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ നൃത്തത്തിലേക്ക് ആദ്യമായിട്ട് എത്തിപ്പെടുന്നത് സ്കൂളിൽ പഠിക്കുമ്പം ആ ഒരു സമയത്താട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ ഡാൻസ് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നത് ഏഴാ ക്ലാസിലാണ് അതിന് ശേഷം ഞാൻ പിന്നെ കളിക്കുന്നേണ്ട് ഒരു അഞ്ച് ആറ് കൊല്ലത്തിന് ശേഷമാണ് പിന്നെ ഞാൻ ഞാൻ ഡാൻസ് കളിക്കുന്നത് ഈ നാട്ടുംപുറത്ത്നിന്നൊക്കെ തുള്ളും അങ്ങനെ കല്യാണത്തിന് അങ്ങനെത്തെ പരിപാടിക്ക് പാട്ട് വച്ച് കൂട്ടുകാരോട് ഫ്രണ്ട്സിനോട് അല്ലാണ്ട് ഒരു സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നത് അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല സ്റ്റേജ് ഫിയർ ആണ് സ്റ്റേജ് ഫിയറ് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെിൽ നാലാം ക്ലാസിൽനിന്നാണ് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മ വച്ച് നോക്കുവാണേൽ നാലാം ക്ലാസിൽനിന്ന് ഒരു ആക്ഷൻ സോങ്ങിനാണ് അല്ല അതിന് മുന്നെ രണ്ടാം ക്ലാസിലും ഞാൻ കളിച്ചിട്ടുണ്ട് അതുപോലെ ആ രണ്ടാം ക്ലാസില് ആദ്യമായിട്ട് ഞാൻ ഡാൻസ് കളിക്കുന്നത് രണ്ടാം ക്ലാസ്സിൽനിന്നാണ് ഇത് ഒരു ഗ്രൂപ്പ് ഡാൻസ് ഇപ്പം ക്ലാസ് എല്ലാരെയും മിസ്സ് ആയിരുന്നു ബോയ്സും ഗേൾസൊക്കെ മിക്സ് ആയിട്ടുള്ള ഡാൻസ് ആണ് അതാണ് എനിക്ക് കളിച്ച ഫസ്റ്റ് കളിച്ച ഡാൻസായിട്ട് ഓർമ്മ വരുന്നത് അങ്ങനെ മുമ്പുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അന്നാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നതൊക്കെ